മലയാള ഭാഷയുടെ രചയിതാവ് എന്നറിയപ്പെടുന്നത് നമ്മുടെ മലയാള ഭാഷയുടെ വികത്തം എന്നറിയപ്പെടുന്നത് എഴുത്തച്ഛനെയാണ് എഴുത്തച്ഛന് എഴുത്തച്ഛന് വേണ്ടി നമുക്ക് കിട്ടിയതാണ് മലയാള ഭാഷ അതുപോലെത്തന്നെ തുഞ്ചത്ത് രാമാനുജന് അങ്ങനെ നമ്മളുടെ മലയാള സാഹിത്യത്തിൽ ഒരുപാട് വ്യക്തികള് കവിതകളിലൂടെയാണ് നമ്മള്ക്ക് മലയാള മലയാള ഭാഷയെ പരിഭോഷിച്ച് കൊണ്ടുവന്നത് കാലക്രമേണ മലയാള ഭാഷയുടെ ചരിത്രം ഒരുപാട് മാറി സംഭാഷണത്തിലും ഉച്ചാരണത്തിലും അതുപോലെ നമ്മൾ എഴുതുന്നതിലും അതിലെ ഒരു വാക്ക് നമ്മൾ എഴുതുന്നതിൽ ഒരു വിവിധ അര്ത്ഥങ്ങളും കണ്ടെത്തി അതിനെ വ്യാഖ്യാനിക്കാനും അതിൻ്റെ അകത്ത് വരുന്ന ഒരുപാട് വ്യത്യാസങ്ങൾ കണ്ടെത്താനും ഇന്നത്തെ മലയാളത്തിന് സാധിച്ചിട്ടുണ്ട് മലയാളിയെ മലയാളികളുടെ യഥാര്ത്ഥ മലയാളെമെന്നത് എന്നത് എന്താണെന്ന് നമ്മള്ക്ക് വളരെ പെട്ടെന്ന് നമുക്ക് വേറൊരു നാട്ടില് ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മലയാളത്തിനെ പെട്ടെന്ന് പഠിക്കാനും തര്ജ്ജിമ ചെയ്തെടുക്കാനും വളരെ ബുദ്ധിമുട്ടാണത് പഠിച്ചെടുക്കാനും മലയാള ഭാഷയുടെ ഇതിഹാസ പരിണാമം എന്നത് കൊണ്ടുദ്ദേശിക്കുന്നതും ഇതൊക്കെത്തന്നെയാണ് മലയാള മലയാള ഭാഷ പല രീതിയിലും ഓരോ രീതിയിൽ അതിനെ ഓരോ വാക്കിനെ പല അര്ത്ഥങ്ങളും പല വ്യാഖ്യാനങ്ങളും കണ്ടെത്തി ഇന്നതിനെ പരിണാമം കൊണ്ടുവന്ന് ഒരുപാട് മുന്നിലയിൽ നിര്ത്തിക്കൊണ്ടിരിക്കുകയാണ് മലയാള ഭാഷ ഇന്ന് ഒരു അതിന്റെ കാര്യത്തിൽ ഒരുപാട് വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഞാനൊരു മലയാളിയായതില് ഞാനിന്ന് അഭിമാനിക്കുന്നു കാരണം നമ്മളുടെ ഉച്ചാരണശൈലിയും സംസാരവും വേറൊരു ഭാഷയിലും അത്ര വൃത്തിയായും നമുക്കത് വേറെ ഭാഷകളായിട്ട് കമ്പയറ് ചെയ്യുംപോലെ താരതമ്യപ്പെടുത്തുന്നത് നമ്മള്ക്ക് അത് സുതാര്യമായി കൈകാര്യം ചെയ്യാന് കഴിയും ഏതൊരു വ്യക്തിക്കും മലയാളത്തെ വളരെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് നമുക്ക് കൈകാര്യം ചെയ്യാന് സാധിക്കുന്നതാണ് വളരെ പെട്ടെന്ന് കൈകാര്യം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കൈകാര്യം ചെയ്യാന് സാധിക്കും അതുകൊണ്ടുതന്നെ നമുക്ക് നമ്മളുടെ എല്ലാ ഏത് നാട്ടില് ഏത് രാജ്യങ്ങളിൽ ആണെങ്കിലും എവിടെയാണെങ്കിലും ഒരു മലയാളി ഉണ്ടാവാതിരിക്കത്തില്ല മലയാള ഭാഷയുടെ ചരിത്രം വന്ന വഴിയല്ല മലയാള ചരിത്രം പോലെയല്ല ഇപ്പോൾ ഉള്ളത് അതിനൊക്കെ ഒരുപാട് വ്യത്യാസം വന്ന് നമ്മൾ മുന്നോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്